നമ്മുടെ ഇന്ത്യ ഇന്ന് വളരെ അധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം അന്ന് ജനസംഖ്യ വർദ്ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ധാരാളമുണ്ട് പിന്നെ തൊഴിൽ അസ്ഥിരത ഉള്ള പ്രശ്നം തൊഴിൽ അസ്ഥിരതയിലുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സാമ്പത്തിക അസമത്വം വളരെ അധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അത് പിന്നെ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് പിന്നെ ഓരോ പ്രാദേശികമായിട്ടുള്ള ഓരോ സംസ്ഥാനങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളാണ് സാക്ഷരത ഇല്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ട് ധാരാളം പകത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നെ ആദിവാസി മേഖലകളിലും അതുപോലെ അപരിഷ്കൃതമായ കുറേ ഏറെ മനുഷ്യർ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വെല്ലുവിളികളും നമ്മൾ നേരിടുന്നുണ്ട് എങ്കിൽ പോലും നമ്മളെ സർക്കാർ അതിനെ ഫലപ്രദമായി നേരിടുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്നത് ഒരു ശരിയായ വസ്തതയാണ് പ്രധാനം പറയുകയാണെങ്കിൽ ഈ കേരളം തമിഴ്നാട് കർണാടക ഉൾപ്പെടുന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ജനസംഖ്യാ വർധനവൊക്കെ വളരെ അധികം കു റവാണ് വളരെ അധികം കുറഞ്ഞ തോതിലാണ് നടക്കുന്നതെങ്കിൽ നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ ഇത് വളരെ കൂടിയ തോതിലാണ് നടക്കുന്നത് പിന്നെ സാക്ഷരത ആണെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ വളരെ ഉയർന്നു കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ജനത ഇല്ല എന്നു തന്നെ പറയാം കാരണം മുൻ സർക്കാരുകളും നമ്മുടെ നാട്ടിലെ ഇതിന് മുമ്പ് നമ്മുടെ തലമുറയിൽ ഫലപ്രദമായി വിനിയോഗിച്ച വിവിധതരം കാര്യങ്ങൾ തന്നെ ആ വക കാര്യങ്ങളിൽ സാക്ഷരതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ധാരാളം അറിവുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പം അതൊന്ന് പിന്നെ പ്രധാനമായും പറയുന്നത് സാമ്പത്തിക അസമത്വം സാമ്പത്തിക അവസതമത്വത്തിൽ ഇപ്പം ശത കോടിശ്വരമാരായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് തീരെ പാവപ്പെട്ടവർ അതായത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുക എന്താണെന്ന് വച്ചാൽ സർക്കാർ വിവിധതരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് വിവിധ കേന്ദ്ര സർക്കാരായിക്കോട്ടെ സംസ്ഥാന സർക്കാരായിക്കോട്ടെ വിവിധ തരം പദ്ധതികൾ ഇവരുടെ ഉന്നമനത്തനായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട് എങ്കിലും ഇതെല്ലാം ജനങ്ങളിലെത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എല്ലാ കാര്യങ്ങളൊന്നും ജനങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം വിധങ്ങളായ പിന്നെ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ആൾക്കാർ ഇതിനോടൊക്കെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു വസ്തുതയും ഇപ്പോൾ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ കൃഷിക്കാർ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യയിലെ കൃഷിക്കാർ ഇപ്പോഴും പരമ്പരാഗതമായ കൃഷി രീതികളാണ് ഇപ്പോഴും പിന്തുടർന്നു വരുന്നത് അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അധ്വാനം അന്നും ഇന്നും കൃഷിക്കാരന് ഒട്ടും കുറഞ്ഞിട്ടില്ല പക്ഷെ ആ അദ്ധ്വാനത്തിന് അനുസൃതമായിട്ടുള്ള അധ്വാനിക്കുന്നതിന് അനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം കൃഷിക്കാരന് കിട്ടുന്നില്ല അപ്പം കൂടുതല് കൂടുതൽ സർക്കാർ വിവിധ പദ്ധതികൾ വിവിധ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കൂടുതൽ അത്യാധുനിക വിത്തിനങ്ങളും ജലസേചന സംവിധാനങ്ങളും സബ്സിഡിയും ഒക്കെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് എങ്കിലും ഇ കുറച്ചു ആളുകളെങ്കിലും ഇതിനെ കുറിച്ചൊന്നും ബോധവാന്മാർ അല്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ വലിയ ഒരു കാര്യം ഇന്ന് വിദ്യാഭ്യാസം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ആളുകളും വിദ്യാഭ്യാസം നമക്ക് ഒരു മുൻതൂക്കം കൊടുക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ വിവിധ സംസ്ഥാനങ്ങൾ കുറേയേറെ കുട്ടികൾ സ്കൂളിൻ്റെ പടി പോലും കാണാത്ത കുട്ടികളുണ്ട് ഇവർക്കായും നമ്മുടെ സർക്കാർ പല തരത്തിലുള്ള പദ്ധതികൾ ആദിവാസി കുട്ടികളും കാട്ടിലെ കഴിയുന്ന അങ്ങനെ കുട്ടികൾകൊക്കെ ആയിട്ട് വിവിധ തരം വിദ്യാഭ്യാസ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചു വരുന്നുണ്ട് എങ്കിലും എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും കുറേയേറെ ആളുകൾ ഇതിനോടെല്ലാം മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു പ്രവർത്തിയാണ് നമ്മൾ ഇവിടെ കണ്ടു കൊണ്ട് വരുന്നത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം വർധിപ്പിക്കാനുള്ള വഴികൾ എപ്പോഴും കൂടുതൽ നമ്മടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി അനുസരിച്ചു നമ്മുടെ രാജ്യം വികസിക്കുന്നതിന് അനുസ്സരിച്ചു നമ്മുടെ നാട്ടിൽ ഓരോ ജനങ്ങളും അത് അനുസരിച്ചു അവർ അഭിവൃദ്ധി പ്പെടണം ജനങ്ങൾ അഭിവൃദ്ധിപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം ഉന്നതമായ ഒരു നിലയിലേക്ക് എത്തുകയുള്ളു അപ്രകാരുള്ള കാര്യങ്ങളും എന്തിരുന്നാലും ഇതുപോലെ നമ്മുടെ ഇവിടത്തെ റോഡുകൾ പാലങ്ങൾ ഹൈവേകൾ അങ്ങനെ വിവിധ കാര്യങ്ങൾ ഇൻറ്റർനെറ്റ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മളെ രാജ്യം വളരെ അധികം വികാസം പ്രാപിച്ചിട്ടുണ്ട് അതൊന്ന് കിട്ടാത്ത ഇതുവരെ ലഭ്യമാവാത്ത ആളുകളും ഉണ്ട് അവരിൽ എത്തിക്കാൻ സർക്കാർ നടത്തുന്ന പദ്ധതികളെല്ലാം തന്നെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ സർക്കാരിൽ എത്തുന്ന വിവിധ പദ്ധതികൾ വരും നാളുകളിൽ നമ്മുടെ നാടിൻ്റെ മുഖഛായ മാറ്റുമെന്ന് നമ്മളെ നമുക്ക് വിശ്വസിക്കാം